ഇപ്പം ഭക്ഷണത്തെ പറ്റി പറയാണെങ്കിൽ നമ്മളിപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ പാടില്ല അതായത് അങ്ങനത്തെ കുറെ ആചാരങ്ങളൊക്കെ നില നിന്നുവരുന്നുണ്ട് പിന്നെ നമ്മൾ രാത്രി ഓവർ രാത്രി ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മൾ എവിടെങ്കിലും പുറത്ത് പോകാൻ നേരത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനത്തെ കൊറേ കാര്യങ്ങളക്കെ പണ്ടുള്ളവരും ഇപ്പോഴും പറഞ്ഞ് തരാറുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു അന്ധവിശ്വാസമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ട് നമ്മളിപ്പോൾ എവിടെങ്കിലും പുറത്ത് പോയാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പം ഭക്ഷണം കഴിച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങൾ ആദ്യത്തേതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ കുനിഞ്ഞ് നിന്നിട്ട് ബാ കപ്പിൽ വെള്ളമൊഴിക്കും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അപ്പം ശർദ്ദിക്കാൻ വരും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു പഴംചൊല്ല് വരെയുണ്ട് ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം അങ്ങനെയാണ് പഴമക്കാർ ചൊല്ലാർ പറയാറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം അത് നല്ല രീതിയിലുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുളിക്കുന്നത് ഷവറിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് അപ്പം നമ്മൾ കുനിഞ്ഞ് നിന്നിട്ട് ഇപ്പം കപ്പെടുത്തിട്ട് വെള്ളം മുകളിലേക്ക് ഒഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനത്തെ പരിപാടികളൊന്നും ഇപ്പം നടക്കുന്നില്ല ഇപ്പം നടക്കുന്നു പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഷവറിലൊക്കെ കുളിക്കുന്നയാണ് അപ്പം അത് ഒരു തെറ്റായ ഒരു പ്രചരണമാണ്